ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ് കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വാർത്തകളിൽ ശ്രദ്ധ കിട്ടാതെ പോയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നു പറയുന്നത് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ളതാണ് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ ശരിക്കും ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നതൊ അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല പെട്ടെന്ന് ഈ വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിലെത്രയും പെട്ടെന്ന് ഈ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർഗ്ഗങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോഴത്തേക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ ആ വെള്ളപ്പൊക്കം നിർമ്മാർജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വളരെ നല്ല രീതിയിലേക്ക് വാർത്ത മാദ്ധ്യമങ്ങളിലൂടെ ഒരു ശ്രദ്ധ വരുന്നത് കാണുന്നില്ല അതേപോലെ തന്നെയാണ് ഈ കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഉപജീവനം അല്ലെന്നുണ്ടെങ്കിലൊരു കൃഷിയാണ് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് നെൽ കർഷകരായിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വാർത്തകളിൽ ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാറില്ല അവരുടെ കൃഷിക്കാർക്ക് കിട്ടേണ്ട നെല്ലിന്റെ വില അല്ലെങ്കിൽ ഇടനിലക്കാരുടെ ചൂഷണങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതേപോലെതന്നെ കൃഷിക്ക് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലാഭകരമായ രീതിയിൽ എങ്ങനെ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലുള്ള വാർത്തകളിൽ വരാറില്ല ഇപ്പോഴും കുട്ടനാട്ടിലെ കൃഷിക്കാർ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷികൾ തന്നെയാണ് ചെയ്തുപോകുന്നത് പക്ഷേ ലാഭകരമായി എങ്ങനെ കൃഷി നടത്തിക്കൊണ്ട് പോകാമെന്ന് പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല വാർത്തകളൊന്നും തന്നെ വരുന്നുണ്ട് എങ്കിൽത്തന്നെ ആണെങ്കിൽ അത് കൊറവാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മീൻ മീൻ നെല്ല് അതുപോലെതന്നെ ബാക്കിയുള്ള കൃഷികൾ തെങ്ങ് അതേപോലെ കരകൃഷികളായിട്ടുള്ള കാര്യങ്ങൾ വാഴ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും ആവശ്യമായ നല്ല ഒരു ഉത്പാദനം കിട്ടുന്ന രീതിയിലേക്ക് നല്ല ലാഭകരമായ രീതിയിൽ ഉത്പാദനം കിട്ടുന്ന രീതീലേക്ക് ഒന്നും നല്ലൊരു വാർത്തകളൊന്നും വരുന്നില്ല അവർക്ക് ഈ മാധ്യമ ശ്രദ്ധയിൽ വരേണ്ട അവർ അവർ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ വരുന്നതുള്ളു അതേപോലെതന്നെ നല്ല നല്ല രീതിയിലേക്ക് ഈ കുട്ടനാടിൻ്റെ നല്ല പിന്ന നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെത്തന്നെ നല്ല രീതിയിലേക്ക് കവറേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അതിനെ ആ ഒരു വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ ആവശ്യമായ പ്രചരണം കൊടുക്കേണ്ടതാണ് ഒപ്പം തന്നെ ഇവിടുത്തെ ഈ മേഘലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അതിനെ പ്രതിരോധിക്കാനൊ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ഈ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിനൊരവബോധം കൊടുത്തുകൊണ്ട് ആൾക്കാർക്ക് വേണ്ട ആ ഒരു നല്ല മെസ്സേജുകൾ കിട്ടുന്ന രീതിയിലുള്ള വാർത്തകളൊന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം